കൃത്രിമ നീന്തൽ കുളങ്ങളും പ്രകൃതിദത്ത കുളങ്ങളും സംബന്ധിച്ച് ഞാനൊരു കുട്ടനാട് താമസിക്കുന്ന ആളായ ആയതിനാലും ഇവിടെ പൊതു തോടുകളും പൊതു കുളങ്ങൾ ഇവിടെ കുറവാണ് കുളങ്ങളിൽ നമ്മൾ നമ്മൾ അമ്പലക്കുളങ്ങളിൽ നമ്മൾ കൊച്ച് കൊച്ച് സമയത്ത് കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അറിയാതെ ആ നീന്തുന്ന സമയത്ത് അറിയാതെ കുറച്ചു വെള്ളം വിഴുങ്ങി പോയാലും നമുക്ക് ആരോഗ്യത്തെ അത് ബാധിക്കത്തില്ലായിരുന്നു അവിടെ കൃത്യമായിട്ടുള്ള ആ നീന്തൽ കുളങ്ങളിൽ ഈ രാസവള പ്രയോഗവും ക്ലോറിൻ പയോഗിച്ചുള്ള ആയിട്ടുള്ള വെള്ളമാണ് കൃത്യമായിട്ട് അവിടെയുള്ളത് അത് ഓരോ നീന്തൽ കുളങ്ങളിലും ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് അവിടെ ഡെയിലി ഡെയിലി വെള്ളം മാറ്റേണ്ടതായുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ക്ലോറിനും രാസപരമായിട്ടുള്ള രീതികളുമാണ് അവത്തിൽ ചെയ്യുന്നത് അത് ആ നീന്തൽ പഠിക്കുന്ന സമയത്ത് നീന്തൽ പഠിക്കുന്ന സമയത്ത് അത് വളരെ ദോഷകരമായിട്ടുള്ള ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് നീന്തൽ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ നീന്തൽ പഠിച്ചിട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ യാതൊരു പ്രശ്നവും നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ അനുസരിച്ച് തലയിലാണെങ്കിൽ ക്യാപ്പ് പോലെത്തെ ഇതെല്ലാം ഉള്ള കാരണം ക്ലോറിൻ തലയിൽ മുട്ടാത്ത കാർണം വലിയ പ്രശ്നം മുടികൊഴിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നം ഒന്നും ഇല്ല ഇപ്പോൾ സാധാ പ്രകൃതിദത്ത കുളങ്ങളൊക്കെ ആകുമ്പോൾ ഇതൊരു പ്രശ്നമല്ല നമുക്ക് ശരീരം നീരുറവയായിട്ട് വരുന്നത് കാരണം വെള്ളം നല്ല ക്ലീയർ ആയിട്ടുള്ള വെള്ളമാണ് അത് നമ്മുടെ ശരീരത്തിന് തലമുടി കുളിച്ചു കയറിയ തലമുടിക്കും യാതൊരു കുഴപ്പവും വരുന്നതല്ല ഇത് സോപ്പ് നമ്മൾ കുളിക്കുന്ന സമയത്ത് ആണെങ്കിലും നീന്തൽ സോപ്പ് പതയാനാണ് നീന്തൽക്കുളങ്ങളിലെ പൊതു പ്രകൃതിദത്ത കുളങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് യാതൊരു കുഴപ്പവും വരുന്നതല്ല നീരുറവ ഉള്ളതിനാൽ ഇത് ഇതിൽ പ്രശ്നം നമുക്ക് കാണുന്നില്ല ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ പ്രകൃതിദത്ത കുളങ്ങളൊക്കെ ശരീരത്തിന് ഒരു തണുപ്പും മാനസികമായിട്ടുള്ള ഒരു നല്ലതാണ് നീന്തൽ പ്രകൃതിദത്ത കുളങ്ങളിൽ നമ്മളൊരു എൻജോയ്മെൻറ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഇപ്പം സിമ്മിംഗ് പൂൾ പോവുന്നത് പോവുന്നത് അതൊരു താൽക്കാലികമായി പതിനഞ്ച് മിനിറ്റ് നമ്മൾ ടൈം വെച്ച് തന്നെ പോയിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ സിമ്മിംഗ് പൂളിൽനിന്ന് നമ്മൾ കയറി പോകാൻ ശ്രമിക്കും പ്രകൃതി പ്രകൃതിദത്തമായിട്ടുള്ള കുളങ്ങൾ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അന്തരീക്ഷത്തിൻ്റെ സാഹചര്യമനുസരിച്ച് ഒരു തണുപ്പും നമുക്ക് അത് ശരീരത്തിന് ഒരു കുളിർമ്മയേകാനും മനസ്സിന് ഒരു ആശ്വാസം കിട്ടും അപകടം എന്ന് എനിക്ക് മനസ്സിലാക്കി ആകുന്നത് സിമ്മിംഗ് പൂൾ തന്നെയാണ് പ്രകൃതിദത്ത ശരീരത്തിന് മനസ്സിനും എപ്പോഴും നല്ലത് പ്രകൃതി തന്നെയാണ് പ്രകൃതിയുടെ കുളങ്ങളും തന്നെയാണ് നമ്മൾ ഈ ക്ലോറിൻ രാസവള പ്രയോഗം എന്നുള്ളതിനാൽ വളരെ ശരീരത്തിനും നമുക്ക് അത് ശരീരത്തിന് നമുക്ക് നമ്മൾ അത് മനസ്സിലാക്കി അങ്ങോട്ട് പോകുന്നതിനാൽ നമ്മൾ അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് കൂടുതൽ വെള്ളത്തിൽ നമ്മൾ കിടക്കാറില്ല അതനുസരിച്ചുള്ള ഡ്രസ്സ് കോഡുകൾ ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത് അത് കഴിഞ്ഞിട്ട് സിമ്മിംഗ് പൂളിൽ കയറിയിട്ട് നമ്മൾ വീണ്ടും തല കഴുകി വീണ്ടും കുളിക്കും എപ്പോഴും നല്ലത് പ്രകൃതിയുടെ കുളം കുളങ്ങൾ തന്നെയാണ്